ആ ഹലോ ആ ആ ആ ഇല്ല ഇല്ല ഇത് ആയില്ലായിരുന്നു ആ അ ആ ആ ആ ആ ഹാ ആ അതെ ആ ആ ആ പൈസ ഞാൻ അടച്ചതാ അടച്ചതാ ആ അതെ മ്മ് മ്മ് വേറെ ആവശ്യങ്ങളൊന്നും ഇല്ല അ അ ആ ആ അത് ശരി ഇല്ല ഇല്ല ഇല്ല ശരി ശരി ശരി മ്മ് മ്മ് ഞങ്ങൾ ഞങ്ങൾ ഇവിടുന്ന് പോയ അച്ഛനെ കാണാൻ തിരുവനന്തപുരത്തിന് പോണവായിരുന്നു ആ അതെ അതെ ഹാ വിസ എടുത്തിട്ടില്ല ആ മ്മ് മ്മ് മ്മ് മ്മ് ആ തിരിച്ച് ഞാൻ എത്തി റിട്ടേൺ എടുക്കാം മ്മ് മ്മ് മ്മ്

ആ ആ അ അ ഓക്കെ വേറെ ആവശ്യമൊന്നും ഇല്ല ഓക്കെ